ഒരു നീണ്ട ബൈക്കിങ്ങ് യാത്രയ്ക്ക് വേണ്ടിയാണ് നമ്മൾ മെയിൻലി ഒരു പെട്രോളാണ് നമ്മുടെ ഏറ്റവും ആദ്യത്തെ പ്രയോറിറ്റി നമ്മളിപ്പോൾ ഒരു യാത്ര പോകുമ്പോൾ നമ്മൾ പല സ്ഥലത്തും കുടുങ്ങിപ്പോവാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് നമ്മളാദ്യം ഒരു വലിയൊരു കന്നാസിൽ അല്ലെങ്കിൽ അങ്ങനെയെന്തെങ്കിലും ഒരു പാത്രത്തിൽ നമ്മൾ പെട്രോള് കരുതണം അടുത്തത് നമുക്ക് നമ്മുടെ റൈഡിങ്ങ് ഡ്രസ്സാണ് നമ്മുടെ ജാക്കറ്റ് ഗ്ലവ്സ് പാഡ് ഹെൽമെറ്റ് എന്നിട്ട് നിയമം നമ്മൾ അനുസരിക്കണം സൊ പിന്നെ പാൻ്റ് ജാക്കറ്റ് അതിപ്പോൾ മുട്ടിൻ്റെ പാഡ് നീ പാഡ് പിന്നെ ഷൂസ് റൈഡിങ്ങ് ഷൂസ് അങ്ങനെ കുറച്ച് സാധനങ്ങൾ പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട നമ്മുടെ ടെൻ്റടിക്കാനുള്ള ഒരു സാധനങ്ങളാണ് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കുടുങ്ങിപ്പോയാൽ ടെൻ്റടിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഒരു നീണ്ട ബൈക്കിങ്ങ് യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുക